ഞാൻ അത്യാവശ്യം സാമൂഹ്യമാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് എനിക്ക് ഫേസ്ബുക്കും വാട്സ്ആപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ടു തന്നെ ഉപയോഗിക്കും ഞാൻ അതിനകത്ത് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് എനിക്ക് ഒരു പെയിന്റിംഗ് സംബന്ധിച്ച് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടു കൊണ്ട് അപ്പോൾ അതിനകത്തും ഞാൻ അതിൻ്റെ സംബന്ധമായ ഞാൻ വരയ്ക്കുന്ന ആർട്ടൊക്കെ അതിനകത്തു ഞാൻ പോസ്റ്റീയാറുണ്ട് പിന്നെ എനിക്കിപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ലൊക്കെ എടുക്കുന്ന എൻ്റെ നല്ല ഫോട്ടോസാണെങ്കിൽ അതിന് ഞാൻ എൻ്റെ മാധ്യമ ഫേ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ നിൽക്കുന്നതും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു അവിടുത്തെ അങ്ങനത്തുള്ള ഫോട്ടോസുമൊക്കെ ഞാൻ എൻ്റെ സാമൂഹ്യ മാധ്യ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് കാരണം എനിക്കതിലൂടെ എൻ്റെ ഫ്രണ്ട്സ് എൻ എൻ ഞാൻ അറിയുന്ന ആൾക്കാർ എൻ്റെ ഫോള്ളോവർ ആയിട്ടുള്ള ആൾക്കാർ ഞാൻ എന്തു ചെയ്യുന്നു എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ അവർക്ക് മനസ്സിലാ സ അതുപോലെതന്നെ മറ്റു വീഡിയോസൊക്കെയാണെങ്കിൽ ഞാൻ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇടാറുള്ളതാണ് അതിപ്പം ഫോട്ടോസ് മാത്രം ആയിരിക്കണമെന്നില്ല എന്തു കാര്യമാണെങ്കിലും ഞാ എന്നെ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ അതിൽ ഉണ്ടെങ്കിൽ എന് ഞാൻ ഉറപ്പായിട്ടും അത് ഇടുന്ന ഒരാളുതന്നെയാണ് പിന്നെയും മാക്സിമം എന്നെ എൻ്റെ ഫോള്ളോവെഴ്സിനെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടും ഞാൻ വി അത് നോക്കാറുണ്ട് എൻ്റെ പേരെന്റ്സിനും എൻ്റെ വീട്ടുകാർക്കും ഒന്നും അതിനിനി യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല എൻ്റെ പേരന്റ്സും ഇങ്ങനെ ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ തന്നാണ് അവരും നമ്മള് ഫാമിലി സംബന്ധമായ ഫോട്ടോസ് അവരുടെ ഫേസ്ബുക്കിലൂടെയും അറിയിക്കുന്നുണ്ട് കാരണം നമ്മടെ ഫാമിലി മെംബേർസ് ബാക്കിയുള്ള റിലേറ്റീവ്സൊക്കെ അത് കാണട്ടെ നമ്മൾ എവിടെയാണ് നമ്മൾ അവിടെപ്പോയെന്ന് ആ അവരൊക്കെ എല്ലാരും അറിയട്ടെ ആ ഒരു രീതിയിൽ ആണ് എല്ലാവരും അതിനെ കാണുന്നത്